നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കുട്ടികൾ ഏതുസമയവും അത് ഉപയോഗിച്ച് പരിശീലിക്കുകയാണ് ഇപ്പോഴത്തെ ഏക വിനോദം ആ കുട്ടികൾ വിനോദം മാറ്റുന്നതിനു വേണ്ടി നമുക്ക് പ്രത്യേകം രാവിലെയോ വൈകുന്നേരോം മുറ്റത്തും പരിസരപ്രദേശങ്ങളിലും നടക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള ഒരു അവസരം രക്ഷിതാക്കൾ ഒരു സംവിധാനം ചെയ്താൽ നമുക്ക് ഈ മുറിയിൽ നിന്നുള്ള ആക്രമണം കുറക്കാനായിട്ട് സാധിക്കും വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പോക്ക് മൊബൈൽ എന്തെല്ലാം സംവിധാനം ചെയ്യാമോ അതെല്ലാം നോക്കി നോക്കി കുട്ടികളുടെ കാഴ്ചയും നഷ്ടപ്പെടുകയാണ് കാഴ്ചശക്തി ഓർമ്മ ശക്തി ഇതെല്ലാം വളരെ അപകടകരമായ രീതിയിൽ നശിച്ചു കൊണ്ടിരിക്കുകയാണ് സാമൂഹികമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പോക്കാണ് പുതിയ തലമുറ അതുതന്നെ

പകരം മുന്നോട്ട് പോകുവാനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ മൊബൈൽ സ്ക്രീനിൽ നിന്നുള്ള ആക്രമണം കുറക്കുവാനായിട്ട് സാധിക്കും